ആ സാറേ എൻ്റെ പേര് ജോയൽ തോമസ് എന്നാണ് സാറേ ഞാനൊരു എജെൻറ്റ് ആണ് നമ്മൾ ഈ നമ്മുടെ ഈ ടെക്സ്റ്റൈൽസ് സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു എജെൻറ്റ് ആണ് സാറേ സാറ് ഹോൾസെയിലർ അല്ലേ ഇതിൻ്റെ ആ സാറേ ഞാൻ എനിക്ക് മെയിൻ ആയിട്ട് ഒരു വേണ്ടത് ടെക്സ്റ്റൈല് പ്രോഡക്സ് എന്ന് പറയുമ്പം ജീൻസ് പിന്നെ പാൻസ് പിന്നെ ഷർട്ട് എല്ലാം മെൻസ് ഐറ്റംസ് ആണ് എനിക്ക് സാറേ വേണ്ടത് ഓ

സാറേ എനിക്ക് ഇൻഡ്യൻ പ്രൊഡക്ടസ് ആണ് സാറേ കൂടുതലും വേണ്ടത് അപ്പം ഇൻഡ്യൻ പ്രോഡക്ടസ് ഇപ്പം നമുക്ക് ഇൻഡ്യൻ പ്രോഡക്ട്സ് ആണ് ഇച്ചിരികൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടത്തില്ലേ ആ എനിക്ക് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ നമ്മുടെ ഈ ആ കുഴപ്പം ഇല്ല സാറേ എനിക്ക് ഇപ്പം അത്യാവശ്യമായിട്ട് സ്റ്റോക്ക് ഉണ്ട് അ ഞാൻ വേറൊരു ഹോൾസെയിലിൻ്റെയിൽനിന്ന് വേടിച്ച കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അപ്പം ആ സാർ ടു മന്ത്സ് ത്രീ മന്ത്സ് എനിക്ക് ഓക്കെയാണ് അപ്പം എനിക്ക് ഇൻഡ്യൻ പ്രോഡക്ട്സ് മതി അത് മെൻസ് വെയറ് നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ സാറേ നമുക്ക് ഇപ്പം ഒരു ഒരു പീസ് ഷർട്ട് ഒക്കെയാണെങ്കിൽ നമുക്ക് എത്രയാ വരുന്നത് സാറേ ആണോ അത് കുഴപ്പം ഇല്ല ആ ബഡ്ജറ്റ് എനിക്ക് കുഴപ്പം ഇല്ല ലോ ക്വാളിറ്റിയും നമ്മൾ നമ്മൾ ഇപ്പം ഇത് നമ്മൾ നോർമൽ ക്വാളിറ്റി ആണല്ലേ നമ്മൾ സാധാരണ നമ്മൾ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാറേ നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ അതായത് ഗ്രാമപ്രദേശങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അവരുടെ ഈ ഏകദേശം ഈ ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും കുഴപ്പം ഇല്ല നോർമൽ ക്വാളിറ്റി ആണെങ്കിലും കുഴപ്പം ഇല്ല കാര്യം

ആ ഓക്കെ സാറേ നമ്മൾ റീറ്റെയിൽ ആയിട്ട് നമുക്ക് റീറ്റെയിലർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പം ആ ഒരു സാറിന് അറിയമല്ലോ അതിൻ്റെ സംഭവം അറിയാമല്ലോ അതിൻ്റെ റേറ്റും സംഭവങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം സാർ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം സാർ അതൊന്ന് പറയാനായിട്ട് കുഴപ്പം ഇല്ല സാറേ സാറ് ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ് അപ്പം സാറിൻ്റെ ഒരു കൺവീനിയൻറ്റ് കൺസെയിൻമെൻറ്റ് ആ അതുതന്നെ ആ ഓക്കെ ശരി സാറെ എനിക്ക് മനസ്സിലായി എനിക്ക് സാറേ എനിക്കൊരു ഒരു ഹൺഡ്രഡ് പീസ് എല്ലാം ഒരു എല്ലാം ഒരു നൂറ് പീസ് വീതം ഉള്ള ഷർട്ട് പാൻസ് പിന്നെ ജീൻസ് പിന്നെ ഷോർട്ട്സ് ഉണ്ടല്ലോ അതും ഒക്കെ ഏകദേശം ഈ റേഞ്ച് ഒക്കെ തന്നെ വരുമല്ലോ ആ അതെ എനിക്ക് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ആയാലും മതി ആ സാറെ ഞാനിത് സാറിന് ഇത് ഞാൻ എൻ്റെ ഒരു ലിസ്റ്റ് ലിസ്റ്റ് ഫോർവേർഡ് ചെയ്തോളാം സാറിനെ വാട്സാപ്പിലൊന്ന് ലിസ്റ്റ് ആ ഓക്കെ ആ സാറെ ഞാൻ എടുത്ത് തരാം സാറെ സാധനം കണ്ടിട്ട് ഓക്കെയാണെങ്കിൽ സാറേ നമുക്ക് വേണമെങ്കിൽ ഒരു മീറ്റിംഗ് ചെയ്യാം വേണമെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലും ഓക്കെ ശരി ശരി ശരി ശരി സാറെ ശരി